സംസ്ഥാനങ്ങളിൽ അനവധി ചെറുകിട വ്യവസായങ്ങളുണ്ട് സർക്കാർ അതിനെ പിന്തുണക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലോണുകൾ പാസ് ആക്കി കൊടുത്തിട്ടും സബ്സിഡി കൊടുത്തിട്ടൊക്കെയാണ് ചെറുകിട വ്യവസായങ്ങളെ സർക്കാർ പിന്തുണക്കുന്നത് അതായത് സംസ്ഥാനത്ത് ചെറുകിട വ്യവസായമെന്ന് പറയുന്നത് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു പൈസയൊന്നും ഇല്ലാതെ തുടങ്ങുന്നവർക്ക് ഒരു ബിസിനസ്സ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊരു വ്യവസായം രൂപീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ബാങ്കുകളിൽ നിന്ന് ലോൺ സർക്കാർ ബാങ്കുകളിൽ നിന്ന് ലോൺ കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അങ്ങനെയാണ് വ്യവസായങ്ങളെ സർക്കാർ പിന്തുണക്കുന്നത് അതിപ്പം കാർഷിക ലോൺ ആവട്ടെ കാർഷികപരമായിട്ടുള്ളവർക്ക് വ്യവസായങ്ങൾ ചെയ്യാനാണെങ്കിൽ തന്നെ അവർക്ക് ഒരു തൈകൾ കൊടുത്തിട്ടും ഫ്രീ ആയിട്ട് തൈകൾ കൊടുത്തിട്ടും വിത്തുകൾ കൊടുത്തിട്ടും അതുപോലെ തന്നെ കാർഷിക ലോണുകൾ കൊടുത്തിട്ടൊക്കെയാണ് അതുപോലെ തന്നെ ഈ ലോൺ കൊടുക്കുന്നതിൽ അവർക്ക് അധിക രീതിയിലുള്ള പലിശ ഈടാക്കാത്ത രീതിയിലാണ് അവർക്ക് ലോണുകൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ അവനവനാൽ കഴിയുന്ന രീതിയിൽ അവനവനാൽ ചെയ്യുന്ന വ്യവസായത്തിൽ നിന്ന് കിട്ടുന്ന മിച്ചത്തിനനുസരിച്ചിട്ട് തവണ അടയ്ക്കാനും ആണ് സർക്കാർ അവർക്ക് കൊടുക്കുന്നതും അവരെ ആ ഒരു ചെറുകിട വ്യവസായത്തിൽ അവരെ എന്താണ് പറയുക സഹായിക്കുന്നതും പിന്തുണ നൽകുന്നതും